കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഏറ്റവും മനോഹരമാണെന്നു ഞാൻ പറയും ഏറ്റവും മികച്ചതാണെന്ന കാര്യം മറ്റ് മറ്റ് ഏത് വിദേശത്തുള്ള എല്ലാ സ്കൂൾ കാലഘട്ടങ്ങളിലെന്നു പറഞ്ഞാൽ പോലും അവിടെ എല്ലാം പഠിപ്പിക്കുന്നു കാണാതെ പഠിക്കണം എഴുതണം പരീക്ഷകൾ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ കേരളത്തിലെന്നുള്ള എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഏറ്റവും ഇഷ്ടത്തിലാക്കാൻ കാര്യമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസാണ് പഠനത്തേക്കാൾ കൂടുതൽ നമ്മുടെ സ്കിൽ വളർത്തുന്നതിന് ഒരുപാട് സഹായകമാണ് ലിറ്റിൽ ടൈംസ് എന്നു പറയുന്ന പോലുള്ള പല പല ആക്ടിവിറ്റീസിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ടു കൊണ്ടു പോകുന്നത് ഒരു ലിറ്റിൽ കൈറ്റ്സ് ലീഡറായി തന്നെയാണ് ഞാനും അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ എനിക്കൊരുപാട് കാര്യങ്ങളെപ്പറ്റി പറയാൻ കഴിയുന്നുണ്ട് നമ്മുടെ എന്താ ജീവിതത്തിൽ ഒരു സ്കൂൾ കാലഘട്ടമെന്നു പറഞ്ഞാലേറ്റവും മികച്ച കാലഘട്ടങ്ങളതായിരിക്കും അതിൽ നമുക്കേറ്റവും കൂടുതൽ സന്തോഷം തോന്നുക എന്നു പറയുന്നത് അവിടെ നമുക്ക് നമ്മളുടെ പഠനത്തിലുപരിയായിട്ട് നമ്മുടെ കഴിവുകളെ പുറത്തു കൊണ്ടു വരാനവരൊരുപാട് സഹായിക്കുന്നുണ്ട് നമ്മുടെ കഴിവുകൾ നമുക്ക് ഒരുപാട് വിശ്വാസത്തോടു കൂടി ഓരോന്നും പ്രവർത്തിക്കാനും നമ്മളെ കൊണ്ട് കഴിയാറുണ്ട് നമുക്കു നമ്മുടെ സ്കിൽസ് വളർത്താനും ഒരുപാട് സഹായകമാണ് ഈ ലിറ്റിൽ കൈറ്റ്സെന്നു പറയണ പോലെയുള്ള പല പല കാര്യങ്ങളും കൊണ്ടു നമ്മുടെ സ്കൂൾ വിദ്യ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ പുറത്തു പോയും നമ്മൾ അവിടെ നിന്നു പഠിക്കുന്നതിലുപരിയായിട്ട് നമ്മുടെ കഴിവുകളെ പുറത്തു കൊണ്ടു വരുന്നത് കേരളവിദ്യാഭ്യാസത്തിനു കഴിയാറുണ്ട്